സർക്കാരിൽ നിന്നും ഇൻഷുറൻസ്ന്ന് പറഞ്ഞിട്ട് കുറെ പദ്ധതികൾ ഇവർ ഇറക്കണൊന്നുണ്ടെങ്കിലും അത് എല്ലാ ആൾക്കാർക്കും എത്തുന്നില്ല കാരണിപ്പം സർക്കാരിന് ഇപ്പോഴ് ത്തന്നെ നോക്കാണെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഇതൊണ്ടോന്നൊന്നും അറിയില്ല പക്ഷേ നമുക്ക് പല തരത്തിലുള്ള ഇൻഷുറൻസൊന്നും ലൈഫ് ഇൻഷുറൻസൊന്നും നമുക്ക് പല രീതിയിൽ കിട്ടുന്നില്ല അത് പേരിന് നമുക്ക് ഉണ്ടെന്നുള്ള ഇപ്പം നമ്മൾ എന്താ പറയാ ഇപ്പം കിട്ടുന്നുണ്ട് ചിലവർക്കും കുറെ വിരലിലെണ്ണാവുന്ന ആൾക്കാർക്ക് ഒരു ഏരിയെടുത്ത് നോക്കിയാച്ചാൽ കിട്ടുന്നൊള്ളു എല്ലാവർക്കും അത് കിട്ടുന്നില്ല കാരണം ഇപ്പം നമ്മൾ നോക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള പഴയ വയസ്സായ ആൾക്കാർക്കിപ്പോൾ ഇതുണ്ട് എന്താ മെഡിസിപ്പ് പോലുള്ള ലൈഫ് ഇൻഷുറൻസൊക്കേണ്ട് അതന്നെ ഇപ്പം കിട്ടുന്നില്ല പകുതി ഹോസ്പിറ്റലിൽ നോക്ക്കാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാർ അതെടുക്ക്വാണ് ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ട് എന്താ പറയാ ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലാണെ വൃത്തീല്ല പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റല് പോലുള്ളവർക്കും അവിടെ പോയിട്ട് നമ്മളിപ്പോൾ ഒരു സർജ്ജറി ഒരു സർജ്ജറിക്ക് നമ്മൾ പോയിട്ട് ഒരു ഒന്നര ലക്ഷം രൂപക്ക് സർജ്ജറി ചെയ്യുന്നെന്ന് വിചാരിക്കുക അത് നമ്മളാദ്യം അടച്ചിട്ട് അതിന്റെ പകുതി നമുക്ക് അക്കൗണ്ടിൽക്ക് വരുന്നാണ് അതിന്റെ ഒരു പ്രോസസ്സ് പക്ഷെ നമ്മൾ ആ പൈസ അടച്ചിട്ട് പകുതിയൊന്നുവല്ല കിട്ടണത് അതുമാത്രമല്ല ഈ ഇഷുറൻസിൻ്റെ പേരും പറഞ്ഞിട്ടവർ ഒന്നര ലക്ഷോല്ലാത്തവർ രണ്ട് ലക്ഷക്കീട്ടെഴുതും എന്നിട്ടവർ നമുക്ക് അതിൻ്റെ പകുതിയായിട്ടെ നമുക്ക് തരൂള്ളു അതാണിപ്പം നടന്ന് വരുന്നത് അതും പകുതി എന്താ ഈ എന്താ പറയാ ഹോസ്പിറ്റല്കാർ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റല് പോലെയുള്ള ഹോസ്പിറ്റലുകളിലൊന്നും ആണ് കൂടുതലവർ ഈ പൈസേക്കെ പിടിച്ച് വക്കുക അതുകൊണ്ട് തന്നെ നമുക്കിപ്പത് മൊത്തം അഫോർഡ് ചെയ്യാം അഫോർഡ് ചെയ്യും അഫോർഡബിളല്ല ഇൻഷുറൻസ് ഉണ്ടായിട്ടും കൂടുതൽ അഫോർഡബളല്ല അതുമാത്രമല്ല ഇപ്പോൾ ഇത് ലൈഫ് ഇന്ഷുറന്സായിക്കോട്ടെ അതിപ്പം ഞങ്ങൾക്ക് അതിന്റെടേലു വന്നിട്ടുണ്ടായിരുന്നു ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ മാത്രം ചെന്നാലേ കിട്ടുള്ളൂന്നൊക്കെ പക്ഷേ അതൊന്നും ശരിയാവണതല്ല കാരണം ഇത്ന്ന് പറയണത് ഒരു ഒരു പാവപ്പെട്ടൊരാൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഗവണ്മെന്റ് ഹോസ്പിറ്റലിലോ ആയിക്കോട്ടെ ഹോസ്പിറ്റൽല് പൂവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഏത് താരത്തിലാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ പല തരത്തിലുള്ള ഇൻഷുറൻസ് ആയിക്കോട്ടെ പക്ഷേ ഇത് ശരിയായ രീതിയിൽ നടത്തിപ്പോകുന്നില്ല ശരിയായ രീതീലത് എല്ലാവർക്കും എത്തുന്നുല്ല അതാണ് കാര്യമായിട്ട് പറയാനുള്ളത് പിന്നെ ധനപരമായ രീതീയിൽ നോക്ക്വാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും കിട്ടുന്നില്ല ധനപരമായ രീതീലാണെന്നുണ്ടെങ്കിലും അതെ എല്ലാ രീതീലാണെന്നുണ്ടെങ്കിലും അതെ അത് എല്ലാവർക്കും കിട്ടുന്നില്ലാന്നുള്ളതാണ് സത്യം